പിന്നെ ചില ഭാ ഉച്ഛരിക്കുന്ന രീതിക്ക് ഒരേ തന്നെ കാര്യങ്ങളാണെങ്കിലും അവരെഴുതുന്നതൊന്നാണെങ്കിൽ പോലും പറയുന്നത് പറയുന്നതു രണ്ടും വളരെ വ്യത്യാസമായി പോകുന്ന സാഹചര്യങ്ങളൊക്കെയുണ്ട് ഇപ്പം ഒരു വാക്കായിരിക്കത്തില്ല ഒരു സംഭവത്തിനു തന്നെ ഉപയോഗിക്കുന്നേ ഒരു വാക്കായിരിക്കത്തില്ല വേറൊരു സ്ഥലത്ത് അതിനുപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരേ വാക്കിനു രണ്ടർത്ഥം വരുന്നവസ്ഥ വരും ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് മലയാളം ഞാൻ മലയാളത്തിൻ്റെ കാര്യമേ അങ്ങനെ കേട്ടിട്ടുള്ളു പിന്നെ കന്നഡ തെലുങ്കൊക്കെ ആണെങ്കിലും കുറേ കട്ടി കൂടിയ തെലുങ്ക് അല്ലാതെ ഉണ്ട് മലയാളം ഈ നാനാ ജാതിയിലുള്ള ആൾക്കാർ താമസിക്കുന്ന ഇന്ത്യയിലിങ്ങനെ പല ഭാഷകളുണ്ടാകുന്നു മലയാളം തന്നെ ഇങ്ങനെ പല വൈവിധ്യങ്ങളിലുണ്ടാകുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുന്നു